ഹലോ ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ ഓക്കെ ഞാൻ ഒരു ടു വീക്സ് മുൻപ് ഒരു ബില്ല് പേ ചെയ്തിരുന്നു അതെ ഞാൻ ഒരു ഓൺലൈൻ ആപ്പ് വഴിയാണ് ചെയ്തത് അപ്പം അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് റെസിപ്റ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ പേയ്മെൻറ് സക്സസ് എന്നാണ് കാണിച്ചത് പക്ഷെ എനിക്ക് അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല അതെ ആപ്പ് വഴിയാണ് ചെയ്തത് ഒരു രണ്ടാഴ്ച മുൻപാണ് ഞാനത് ചെയ്തത് അതെ അതെ മാർച്ചിലെ മാ മാർച്ചിലെ കറൻറ്റ് ബില്ലാണ് അടച്ചത് ഒന്ന് ഓക്കെ എനിക്ക് ഇപ്പോൾ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ റിസിപ്റ്റ് അപ്പം ഇനി അവിടെ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യണോ അതോ അത് ആപ്പ് വഴി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കൻ പറ്റുന്നത് ആണോ

ഓക്കെ ഓക്കെ എന്താണേലും സ്റ്റാറ്റസ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് ഒന്ന് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി താങ്ക്യൂ താങ്ക്യൂ